മതകേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു മതകേന്ദ്രമായ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് അതുകൊണ്ടുതന്നെ സീസൺ എന്ന് പറയുമ്പോൾ അവിടെ ഉത്സവകാലത്ത് ഒത്തിരി ആൾക്കാർ വന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധിക്കാനാകും ആ പിന്നെ അതുപോലെത്തന്നെ അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ദിവസങ്ങളിൽ ഉദാഹരണത്തിന് വിഷു ശ്രീകൃഷ്ണജയന്തി പോലുള്ള ദിവസങ്ങളിലും നിരവധി നിരവധി ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്നതായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അതുപോലെ പക്ഷേ ഈ ഈയൊരു ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്രത്തോളം ഇംപോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ ഈയൊരു പ്രശ്നം കാരണം ഒരിക്കലും ആ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ആൾക്കാർക്ക് ഇടയിലും വിവിധ മതത്തിൽ പെടുന്ന ആൾക്കാർക്ക് ഇടയിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാരണം ഒരു മതസൗഹാർദ്ദം ഉള്ള ഒരു ഗ്രാമമാണ് എൻ്റേത്